ആ സാർ വരൂ സാർ

ആ ഓക്കെ ഏത് എത്രാം ക്ലാസ്സ് ആണ് ആ രണ്ട് പേര് ഉണ്ടാവും ഓക്കെ ഓക്കെ ആ ഓക്കെ സാർ ഇതിപ്പോൾ അന്വേഷിച്ചിട്ട് ഉണ്ടാവുമല്ലൊ ഇപ്പം നമ്മള് ഇവിടെ ജില്ലയിലെന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന സ്കൂൾ ആണ് ഞങ്ങളുടേത് ആ അയിൻ്റെതായ എല്ലാ കോഴ്സും നമക്ക് ഇന്ന് ഉണ്ട് അതുപോലത്തന്നെ ഞങ്ങള് ലേശം ക്വാളിറ്റി ആയിട്ട് നിൽക്കുവാണെങ്കിൽ പിന്ന എല്ലാത്തിലും നമ്മള് സ്റ്റുഡൻറ്റ്സ് ആണ് മെച്ചപ്പെട്ട് നിൽക്കുന്നത് സാർ ഇത് ഒക്കെ അന്വേഷിച്ചിട്ട് ആയിരിക്കില്ലെ വന്നിട്ട് ഉണ്ടാവുക അപ്പോ നമ്മുടെ ആ ഓക്കെ അപ്പം നമ്മുടെ ഫീസിൻ്റെ കാര്യങ്ങൾന്ന് പറയുമ്പോൾ ആ എൽ കെ ജി മുതല് അഞ്ചാം ക്ലാസ്സ് വരെ ഒരു കുട്ടിക്ക് ഒര് വർഷം ഒര് ലക്ഷന്ന് ഉള്ള രീതിയിൽ ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ സാറിന് രണ്ട് മക്കൾ ഉണ്ട് പറഞ്ഞ് ഒരാള് രണ്ടാം ക്ലാസ്സിക്കും എൽ കെ ജിക്കും അല്ലെ അപ്പം രണ്ട് പേരെ ഒരുമിച്ച് ചേർക്കണന്ന് ഉണ്ടെങ്കിൽ നമ്മള് ഫീസിൻ്റ എട്ട് പത്ത് റിഡക്ഷൻസ് ഒക്കെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ എന്താ നമുക്ക് ഇവിടെ കുട്ടികള് വല്ല ഡാമേജും വരുത്താന്ന് ഉണ്ടെങ്കിൽ അതിന് ഒക്കെ ആയിട്ട് നമ്മൾ ഒരു കോഷൻ ഡെപ്പോസിറ്റ് അയ പതിനായിരം രൂപ ഇവിടെ അടയ്ക്കണം അടയ്ക്കണം നിങ്ങള് ചേരുന്ന സമയത്ത് അടച്ചാ മതി പിന്നെ ബാക്കി ഓ ഒര് ലക്ഷം ആണ് ഫീസ് ഒരാൾക്ക് പറയുന്ന് ഉണ്ടെങ്കിൽ അതിൻ്റ ഒരു പകുതി ആണ് നിങ്ങൾ ആദ്യം ചേരുന്ന സമയത്ത് അടയ്ക്കണ്ടത് ബാക്കി ഒര് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നെ അടച്ച് തീർത്താലും മതി അത് കുഴപ്പം ഒന്നും ഇല്ല ആ ഓക്കെ പിന്ന സാറിൻ്റെ വീട് എവിടെ ഏത് ഭാഗത്ത് ആയിട്ടാ വരുന്നത് ആ സാർ നമുക്ക് ഇവിട കുറച്ച് ബസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം രണ്ട് പേർക്ക് ആണെങ്കീ അതുപോലത്തന്നെ ട്രാവലിംഗ് എന്ന നിലയിൽ പ്രശ്നം ഉണ്ടാവില്ല ഒറ്റപ്പാലം സൈഡിന്ന് എന്തായാലും റൂട്ട് ഒക്കെ ഉണ്ട് അപ്പം നമ്മക്ക് ബസ്സിൻ്റ ഡീറ്റെയിൽസ് വേണന്ന് ഇണ്ടെങ്കീ അത് നമ്മക്ക് എക്സ്ട്രാ ഡിസ്റ്റൻസ് ഒക്ക നോക്കീട്ട് നമ്മക്ക് അയിൻ്റ ഫീസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാ

പിന്നെ ഇല്ല ഇല്ല നമ്മള് നമ്മള സ്കൂളിന്നെന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് നമ്മള് ഫീ ഈ വൺ ലാക്ക്ന്ന് പറയുന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ ഉള്ള ഫീസ് മാത്രം ആണ് ബാക്കി ഫീസ് ബുക്കിന് ഒക്കെ ഇവിട ഒര് പർട്ടിക്കുലർ ഫീസ് ഉണ്ട് ബുക്ക് യൂനിഫോമ് ഒക്ക ഇവിടിന്ന് പ്രൊവൈഡ് ചെയ്യും പക്ഷെ നിങ്ങൾ അതിന് ഒക്കെ ഒരു എക്സ്ട്രാ ഫീസെന്ന് ഇള്ള രീതിയില് വേറെ അടക്കേണ്ടത് ആയിട്ട് ഉണ്ട് ഒര് വർഷത്തേക്ക് വേണ്ട എല്ലാ ബുക്ക്സ് പെൻസ് അതുപോലത്തന്നെ ചെറിയ കുട്ടികൾക്ക് ആണെങ്കിൽ ക്രയോൺസ് കളർ ബുക്ക് ഒക്ക ഉണ്ടാവില്ലേ അത് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ പർട്ടിക്കുലർ എമൗണ്ട് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒര് കാര്യത്തിലും നോക്കണ്ട ബാഗ് അടക്കം കുട്ടിക്ക് വർഷത്തില് ഒര് ബാഗ് രണ്ട് യൂണിഫോം അവർക്ക് വേണ്ട ബുക്ക്സ് പെൻസ് പെൻ ഒരു അഞ്ച് എണ്ണെ കിട്ടുള്ളൂ ഒര് ഒറ്റ അടിക്ക് ഏ അഞ്ച് പെന്ന് എങ്ങനെയാ ഒര് പാക്കറ്റ് പെൻസിൽ അങ്ങനെ ആണ് ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആ അപ്പം അങ്ങനെ ആണ് കാര്യങ്ങള് പിന്ന രണ്ട് പേരെ ഒരുമിച്ച് ചേർക്കുവാണെങ്കിൽ അയിന് റിഡക്ഷൻ ഉണ്ടാവും പിന്ന ഫാമിലി മെമ്പേഴ്സിൽ ഉള്ളത് കുട്ടികൾ എല്ലാം ഉണ്ടെങ്കിൽ ഈ ആ വരുന്നത് കുട്ടികളുടെ എണ്ണം അനുസരിച്ചിട്ട് ഫീസ് കാര്യത്തിൽ റിഡക്ഷൻ ഉണ്ടാവും ആയിരിക്കും ആ ഓക്കെ സാർ ആ ഞാൻ പോസിറ്റീവ് ആയിട്ട് ഉള്ള റിപ്ലൈ പ്രതീക്ഷിക്കുന്നു